എട്ടുലക്ഷത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എട്ടുലക്ഷത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എട്ടുലക്ഷത്തി എണ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എട്ടുലക്ഷത്തി എൺപതെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എട്ടുലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്